ഇപ്പോൾ ഏറ്റവും കൂടുതലാൾക്കാർ ആണെങ്കിലും ഇപ്പോൾ പഠിച്ച് പ്ലസ്ടൂ കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രീസ് ആരും യൂസ് എടുക്കുന്നല്ല മെയിനായിട്ടിപ്പം എല്ലാവരും ജോലി സാധ്യതയുള്ള കോഴ്സസാണ് തിരഞ്ഞെടുക്കുന്നത് നേഴ്സിങ്ങ് നേഴ്സിങ്ങെടുക്കുന്നത് ബെയ്സ് ചെയ്തതിനാൽ അവർക്ക് പുറത്താണെങ്കിൽപ്പോലും പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സാലറി ആണെങ്കിലും ജോലി സാധ്യതയും കൂടുതലാണ് പണ്ടൊക്കെ എല്ലാവരും ഡിഗ്രി എടുത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് എഞ്ചിനിയറിംഗിന് പോയി എഞ്ചിനിയറിംഗിന് എഞ്ചിനിയറിംഗ് പഠിച്ച് പലർക്കും ജോലി കിട്ടാതെ പലരും വീട്ടിലിരിക്കുന്നുണ്ട് എത്രയോ നമ്മൾ പൈസ കൊടുത്ത് പഠിച്ച് നമ്മൾക്കൊരു ജോലി ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് നല്ല രീതിക്കറിയാം അതുകൊണ്ടിപ്പോൾ എല്ലാവരും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നേഴ്സിങ്ങ് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് പാതി മുക്കാലും ആൾക്കാർ നേഴ്സിങ്ങാണ് പ്രൈവറ്റായിട്ട് ആണെങ്കിൽപ്പോലും ഗവൺമെൻ്റായിട്ട് ആണെങ്കിൽപ്പോലും എല്ലാവരും നേഴ്സിങ്ങ് മേഖലയിലേക്കാണ് പോകുന്നത് നേഴ്സിങ്ങ് ജോലിയെന്ന് പറയുമ്പം നാട്ടിലാണെങ്കിലും പുറം നാട്ടിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ സ്കോപ്പുള്ള ജോലിയാണ് പുറം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സാലറി കൂടുതൽ കിട്ടുന്നത് ബേസ് ചെയ്ത് എല്ലാവരും നേഴ്സിങ്ങെടുത്തിട്ട് പുറം നാട്ടിലേക്കാണ് പോവുന്നത് ജെർമ്മനിയിൽപ്പോയി ജോലി ചെയ്യുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട് നേഴ്സിങ്ങ് പഠിച്ചിട്ട് നേഴ്സിങ്ങ് പഠിച്ച് ജെർമ്മൻ ഭാഷ പഠിച്ച് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് പലരും നേഴ്സിങ്ങെടുക്കുന്നതിപ്പം അത് ബുദ്ധിമുട്ടി പഠിച്ചാലും ജോലി കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൻ പുറത്താണിപ്പം എല്ലാവരും നേഴ്സിങ്ങെടുക്കുന്നത് പണ്ടൊക്കെ ഡിഗ്രി ഡിഗ്രി എടുക്കാം ഡിഗ്രി കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിനെടുക്കാം അല്ലെങ്കിൽ എന്ത് എഞ്ചിനിയറിംഗിന് പോവാം അങ്ങനെ പല പല രീതിയ്ക്ക് പല പല ആൾക്കാർ പല രീതിക്കാണ് പഠിയ്ക്കാൻ പൊയ്ക്കോണ്ട് ഉണ്ട് ഇപ്പോൾ എല്ലാവരും നേഴ്സിങ്ങാണ് എടുക്കുന്നത് നേഴ്സിങ്ങെടുത്ത് കയിഞ്ഞാൽ മെയിനായിട്ട് ജോലി കിട്ടും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് നേഴ്സിങ്ങ് തന്നെ എല്ലാവരും തിരഞ്ഞെടുത്ത് നേഴ്സിങ്ങ് പഠിക്കാൻ പോവുന്നത്